ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഓൺലൈനിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതെന്ന് വച്ചാൽ എൻ്റെ ടി വി ആയിരുന്നു ഇത് വാങ്ങിക്കുന്നതിന് മുമ്പേ ഒരു നൂറുവട്ടമെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും ഇത് വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളത് കാരണം നമ്മൾക്ക് അറിയില്ല ഓൺലൈൻ ആവുമ്പോൾ പല ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് വരും അങ്ങനെ ഇങ്ങനെ ഇത് പല ഗോസിപ്പുകളും നമ്മുടെ നാട്ടിലോടുന്നുണ്ട് അപ്പോൾ അത് വച്ചിട്ട് തന്നെ റിസ്കായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ഭയങ്കര റിസ്കായിട്ടാണ് ഞാൻ എടുത്തത് പക്ഷേ ഞാൻ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ടീ വി വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ഒരു എഴുപതിനായിരത്തിൻ്റെ ടി വി സെവൻറ്റി തൗസൻറ്റ് വരെയുള്ള ഒരു ടി വിയാണ് ഞങ്ങൾക്കൊരു തേർട്ടി ടു ഫോർട്ടി തൗസൻൻറ്റിനൊക്കെ കിട്ടുന്നത് ഞാനും ആ ഒരു റേഞ്ചില് നമ്മൾ ഏതൊരു ഷോപ്പിൽ നിന്ന് നമുക്കൊരിക്കലും പ്രോഡക്റ്റ് കിട്ടാറില്ല പക്ഷേ ഞാൻ വാങ്ങിച്ച ടി വി എനിക്ക് നല്ല മാക്സിമം റേറ്റിൽ ഏറ്റവും നല്ല ബെസ്റ്റ് റേറ്റിൽ എനിക്ക് കിട്ടി അതു പോലെ തന്നെ അപ്പോൾ സ്വാഭാവികായിട്ടും നമ്മൾ ഓൺലൈൻ എടുക്കുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല എടുത്ത് നമ്മൾഫിറ്റ് ചെയ്തു നോക്കുമ്പോൾ ആണ് അതിൻ്റെ ക്വാളിറ്റി അപ്പോഴാണ് ശരിക്കും നമ്മൾ ഇതിനെ ശരിക്കും നമ്മൾ ഒരു സാധനം വാങ്ങിച്ചിട്ടാവുമ്പോൾ കുറെ ആൾക്കാർ അതിനെ കുറ്റം പറയാൻ തുടങ്ങും അത് അങ്ങനെയായിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് അപ്പോഴാന്ന് നമ്മളിതിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങുന്നത് അങ്ങനെ ഞാൻ ഇത് പഠിച്ചു നോക്കുമ്പഴേക്കും ഫീച്ചേഴ്സ് വൈസ്

അപ്പം അതു കൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി കുറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏത് അത്ര പ്രൈസ് കുറക്കണമെങ്കിൽ ഇത് ബാലൻസ് ചെയ്യണ്ടേ പക്ഷേ അറിഞ്ഞ് നോക്കുമ്പോൾ ഒരു ക്വാളിറ്റിക്കും ഒരു കുറവുമില്ല ഇന്നിപ്പോൾ നാലോ അഞ്ചോ അഞ്ചു വർഷമായി എനിക്ക് തോന്നുന്നു അഞ്ച് വർഷായിട്ടുണ്ടാവും ഞാനിത് വാങ്ങിയിട്ട് പക്ഷെ ഇപ്പോഴും പെർഫെക്റ്റായിട്ട് ഓടുന്നു അതിൻ്റെ ബാറ്ററി ഡിസ്പ്ലേ ആയാലും അതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയായാലും എല്ലാം പെർഫെക്റ്റാണ് ഒരു ബുദ്ധിമുട്ടും എനിക്ക് അതിനെക്കൊണ്ട് വന്നിട്ടില്ല അതുമാത്രമല്ല അത് കണ്ടിട്ട് അപ്പം അത് കണ്ടിട്ട് അതിനു ശേഷം എൻ്റെ കൂട്ടുകാർക്ക് ഞാനിത് റെക്കമെൻറ്റ് ചെയ്തു ഇത് കൂട്ടുകാർക്ക് വേണ്ടി ഇത് അവർ വാങ്ങി എൻ്റെ കൂട്ടുകാർ വാങ്ങി ഈ സാധനം അതിനുശേഷം ഓൺലൈൻ നിന്ന് ഒരുപാട് പ്രോഡക്റ്റ് ഞാൻ വാങ്ങി സ്വാഭാവികമായിട്ടും ഓൺലൈനായാലും ഓഫ്ലൈനായാലും എങ്ങനെ നമ്മൾ വാങ്ങിയാലും എലക്ട്രോണിക് സാധനം ആവുമ്പോൾ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവും സ്വാഭാവികം അപ്പോൾ നമുക്കിതിൻ്റെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങി കഴിഞ്ഞാൽ നമുക്കത് അവിടെ നിന്ന് റിപ്പയർ ചെയ്യാൻ കൊടുക്കാം സർവീസിന് കൊടുക്കാം ഈ ഓൺലൈനിൽ നിന്ന് വാങ്ങിയാൽ ഇതിനൊരു ബുദ്ധിമുട്ടുണ്ട് ഈ സർവീസിൻ്റെ അതാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ നേരെ നോക്കിയാൽ ഇപ്പോൾ വളരെ ഈസിയാണ് ഓൺലൈനായാലും ഓഫ്ലൈനായാലും ഇതൊക്കെ സർവീസ് തരേണ്ട സർവീസ് ആൾക്കാർ ഒന്നു തന്നെയാണ് നമ്മൾ ഒന്നു കോൾ ചെയ്താൽ ചെയ്താൽ ഒരു കൊളോ കോൾ ചെയ്താൽ മാത്രം മതി ആ പയ്യൻ ഞാൻ വാങ്ങിയ പ്രോഡക്റ്റിൽ ഞാൻ നൂറ് ശതമാനം ഹാപ്പിയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് വൈസ്സായാലും അതിൻ്റെ ക്വാളിറ്റി ആയാലും അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ആയാലും അതിൻ്റെ പിക്ചർ ക്ലാരിറ്റി ആയാലും എല്ലാം ആ ടി വി പെർഫെക്റ്റാണ് അതായത് ഇന്നത്തെ ഈ ഒരു കാലഘട്ടങ്ങളിലും സിനിമയുണ്ടല്ലോ ഈയൊരു സ്മാർട്ട് വേൾഡ് എന്നൊക്കെ പറയാം നമ്മൾക്ക് എല്ലാ സ്മാർട്ടായിട്ടാണ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും കാലത്തെ ഈയൊരു സമയത്തൊക്കെ ഇത് ഇതു പോലുള്ള പ്രോഡക്റ്റ് ഈ ഇത്ര കുറഞ്ഞ പൈസക്ക് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഭാഗ്യം തന്നെ എനിക്ക് പറയാൻ കഴിയും കാരണം നേരെ ഒരു ഷോപ്പിലൊക്കെ പോയാൽ ഈ ഒരു റേറ്റിൽ നമുക്ക് കിട്ടില്ല എന്തായാലും ആ ഒരു പ്രോഡക്റ്റ് എൻ്റെയും എൻ്റെ ഫാമിലിക്കും എനിക്കറിയുന്നവർക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഈ ഇതു കൊണ്ട് അതിൻ്റെ എല്ലാ വശങ്ങളും ഏത് വശം നോക്കിക്കോട്ടെ ഈ പറഞ്ഞ പോലെ ക്ലാരിറ്റി ആയാലും എല്ലാം കൊണ്ടും ഭയങ്കരം ഹാപ്പിയാണ് നമ്മളെല്ലാവരും